ആ ഇലക്ട്രീഷ്യൻ അല്ലേ

അല്ല

അതെ ഇപ്പം മെയിൻ സ്വിച്ചിന് ആ മെയിൻ സ്വിച്ചിന് ഇപ്പോൾ എന്തോ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട് അതുപോലെ ഫാൻ ഒന്നും വർക്ക് ആവുന്നില്ല ഞങ്ങളുടെ ആണോ അറിയില്ല ആണോ വരാൻ പറ്റുമോ ആ വരാൻ പറ്റുമോ അയ്യോ ഇനി പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരുമോ ഞങ്ങൾ അന്ന് മേടിച്ചിരുന്നു സാധനങ്ങൾ അപ്പോൾ കൂടുതൽ എന്തെങ്കിലും വാങ്ങിക്കേണ്ടി വരുമോ ഇനിയും

അല്ല ഞങ്ങൾ അന്ന് അല്ല അന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിരുന്നു ആ അതെ പക്ഷേ ബാലൻസ് ഒന്നും ഇരിപ്പില്ല അപ്പോൾ എന്തായാലും പുതിയത് മേടിക്കേണ്ടേ അല്ല അത് ചെക്ക് ചെയ്താലല്ലേ അറിയുള്ളൂ എന്ന് വരാനായിട്ട് പറ്റും ആ

ആ ഏകദേശം ഒരു ആ റേറ്റ് ഒന്ന് പറയാൻ പറ്റുമോ സാധനങ്ങൾ മേടിക്കേണ്ടത് ഏകദേശം ഒരു എത്ര രൂപയായിരിക്കും ഈ ഫാനിന്റെ കാര്യം പറഞ്ഞില്ലേ അത് നമുക്ക് ഒന്ന് രണ്ട് റൂമിൽ ഉണ്ട് ആ ഒരു റൂമിൽ ഒരു റൂമിന്റെ സൈഡിലോട്ട് അങ്ങനെ ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ ഓക്കെ പക്ഷേ മൊത്തത്തിൽ മാറ്റണമെങ്കിൽ ഇത്തിരി കോസ്റ്റ്ലി ആകില്ലേ ഞങ്ങൾ ഇന്നാൾ മേടിച്ചതിന് അത്യാവശ്യം റേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഡിസ് ഡിസ്കൗണ്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാ പറ്റുമോ നമ്മൾ ഈ സാധനം മേടിക്കുമ്പോഴേ നമ്മൾ എന്തായാലും ഇന്നാൾ ഒരിക്കൽ ചെയ്തതാണല്ലോ അപ്പോഴത്തേനും നമ്മൾ ഇപ്പോൾ അങ്ങനെ കമ്പനി തന്നെ മേടിക്കണം എന്നുണ്ടോ അതോ പച്ച ആ അല്ല അല്ല ഈ സാധനങ്ങൾ മേടിക്കാനായിട്ട് എന്തായാലും നിങ്ങൾക്ക് അറിയാവുന്നവരുടെ ഷോപ്പിൽ ആയിരിക്കുമല്ലോ പോകുന്നത് അപ്പോഴത്തേനും നമുക്ക് അവരോട് പറഞ്ഞാൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയാൽ ഒരു ഉപകാരമായിരുന്നു

ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ വിളിച്ചതിന് ശേഷം വന്നാൽ മതി ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക്സ് ഓക്കെ താങ്ക്സ്